നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് പരിശോധിക്കാൻ പോകുവാൻ ഏറ്റവും നല്ല സ്ഥലം എന്നു വച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അസുഖങ്ങൾ എല്ലാം കൂടി നല്ലത് ഹോസ്പിറ്റൽ ആണെന്നെ ഞാൻ പറയുള്ളൂ വീട്ടിൽ നിൽക്കാത്തതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വച്ചാൽ വീട്ടിലുള്ളവർക്ക് കൂടി രോഗം വരേണ്ടല്ലോ ഇപ്പോഴാണെങ്കിൽ പുറത്താണെങ്കിൽ ഡോക്ടർമാർ പെട്ടെന്ന് ചെക്ക് ചെയ്യലും എല്ലാം ചെയ്യും അതുകൊണ്ട് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് സ്കാൻ ചെയ്യലെല്ലാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഏറ്റവും നല്ലത് ഹോസ്പിറ്റലിലേക്കുതന്നെ വേഗം പോകുന്നതാണ് ഒരു അസുഗം വന്നിട്ട് രണ്ടു ദിവസം മൂന്നു ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും കാര്യമില്ല അസുഗം വന്നപാടെതന്നെ പോവുകയാണെങ്കിൽ അത്രയും നല്ലത് വേഗം നമുക്ക് മാറിക്കിട്ടും എനിക്ക് ഏറ്റവും നല്ലത് ആശുപത്രി പോകുന്നതാണ് ഏറ്റവും നല്ല അഭിപ്രായം എനിയിപ്പോൾ നല്ല പനിയൊക്കെ ആണെങ്കിൽ ഒരു ട്രിപ്പിട്ടു കഴിഞ്ഞാൽ ശരിയാവും അതേപോലെ നമ്മൾ വീട്ടിൽക്കിടന്ന് കഴിഞ്ഞാൽ ഒരു ശരിയുണ്ടാവില്ല ഏറ്റവും നല്ലത് എനിക്ക് താല്പര്യം കൂടുതൽ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം അതുമാത്രമേ ഞാൻ പറയുള്ളു എന്താണെന്നു വച്ചാൽ ഹോസ്പിറ്റലിൽ പോയിക്കയിഞ്ഞാൽ സ്കാനിങ്ങായാലും ബ്ലഡിൽ പ്രോബ്ലമോ എന്ത് പ്രോബ്ലം ആയാലും അതെല്ലം ചെക്ക് ചെയ്യും ഫുഡ് പോയ്സനായാലും എന്തായാലും അതെല്ലം ചെക്ക് ചെയ്യും പെട്ടെന്ന് അതേപോലെ റൂമും എല്ലാം പെട്ടന്ന് ചെക്ക് ചെയ്ത് ഫാസ്റ്റായിട്ട് ചെക്ക് ചെയ്തോളും എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം എന്ന് വച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ്